അ ചാർക്കോൾ റെസ്റ്റോറന്റ് അല്ലേ ഓക്കേ ഓക്കേ അങ്കമാലിയിൽ ഉള്ളത് അത് ഇന്നെന്താണ് സ്പെഷ്യൽ ഉള്ളത് ആണല്ലേ പ്ലാറ്റേർസ് ഏതൊക്കെയാണ് ഉള്ളത് ഓക്കേ ഓക്കേ ഫിഷ് മന്തിയുണ്ടോ ഇന്നവിടെ ഉണ്ടല്ലേ ഒരു ഒരു ഫിഷ് മന്തി വേണേ എത്രയാണ് റേറ്റ് വരിക അ ഓക്കേ എന്റെ അഡ്രസ്സ് എഴുതി വച്ചോളു സൗമ്യ പെരിക്കൽ അരീക്കൽ ഹൗസ് ചെറിയവപാലശ്ശേരി അങ്കമാലി സൗത്ത് പി ഓ അ അങ്കമാലി തന്നെയാണ് ആ റേറ്റ് എത്രയാണ് വരിക ഓക്കേ ഡെലിവറി ഒന്ന് ഗൂഗിൾ പേ ചെയ്തോളു എത്ര മിനിട്ടിനകത്ത് കിട്ടും ഓക്കേ ഓക്കേ താങ്ക് യു